ഇവരമ്മ നാട്ടിലെ ഇവർ വൈകുന്നേരത്തെ ഒരു കളി അല്ല എല്ലാ ഏകദേശം എല്ലാ നാടുകളിലും ഉണ്ടാകുന്നതാണ് ഈ കളിക്കുക പറയുമ്പോൾ ഈ നാട്ടുകാരും അടുത്തുള്ള നാട്ടുകാരെല്ലാം വന്നിട്ട് കളിക്കുമ്പോൾ ഞമ്മ അവരോട് അവരോടായിട്ട് കൂട്തൽ ഫ്രണ്ട്ഷിപ്പുണ്ടാവുന്നുണ്ട് സൗഹൃദവും പിന്നെ നല്ല ഫാമിലി പോലെ തന്നെയാവും പരസ്പരം ഇങ്ങനെ അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ നല്ല നല്ല അവസരങ്ങൾ കിട്ടുന്നുണ്ട് മനസിലാക്കാനും സൗഹൃദത്തിനെ അതിനും ഇതിനെല്ലായി അങ്ങനെ എല്ലാ കാര്യത്തിനായിട്ടും അങ്ങനെ വൈകുന്നേരങ്ങളിൽ ഒരു കളി നാട്ടിലുണ്ടെങ്കിൽ ഫുട്ബോൾ പോലത്തൊരു കളി ആവുമ്പോൾ അതിൽ കളി കാണാൻ വരുന്നവരായാലും കളിക്കുന്നവരായാലും കുറേ പേരുണ്ടാവും എല്ലാവരോടായിട്ടും നല്ല നല്ല സൗഹൃദവും അങ്ങനെ ഇ ങ്ങനെ നല്ല നല്ല ബന്ധങ്ങളാണ് അവരോട് പുലർത്താൻ കഴിയുന്നത് വൈകുന്നേരങ്ങളിൽ കളി ഒരു ഒന്നര മണിക്കൂർ ഒരു മണിക്കൂറുണ്ടെങ്കിലും ഞമ്മക്കത് ഒരു ലൈഫിൽ നല്ല ഒരു ഇപ്പോൾ കുറേ ആൾ ക്ലാസ്സ് കഴിഞ്ഞ് വരുന്നവരുണ്ടാവും ഇല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വരുന്നവരുണ്ടാവും അവർക്കെല്ലാം മെയ്യാ കളിക്കുന്നെങ്കിൽ എപ്പോഴും ഇങ്ങനെ കൂട്ടാരോട് ഒന്നിച്ച് കളിക്കുന്നവർ നല്ല റീലാക്സേക്ഷൻ ടൈമ് പോലെയാണ് എന്നാലും ഒരു ആശ്വാസം അതിലൂടെ കിട്ടുന്നുണ്ടാവും നല്ല ഒരു എൻ്റർടെയ്ൻമെൻടു ഉണ്ടാവും ഈ ജോബിൻ്റെ സ്ട്രെസ്സും അതും ഇതൊക്കെ കാരണം കുറെ ഇത് സ്ട്രെസ്സ് അങ്ങനെ ഇങ്ങനെ കുറേ മനസ്സ് ശരിയല്ലാത്തവർക്ക് ഈ വൈകുന്നേരത്തൊരു കളിയിലൂടെ നല്ല നല്ല എൻ്റർടെയ്ൻമെൻടും കുറച്ച് ആശ്വാസവും ഇങ്ങനെ ഓരോന്നാ ആൾക്കാരും എല്ലാവരും ഒന്നിച്ച് കൂടുമ്പം നമ്മൾ പരസ്പരം ഊക്കാനുള്ള ഊക്ക്കളും അത് ഒക്കെ കണ്ടു എല്ലാ തരത്തിലും ഒരു തമാശ രൂപേണ നല്ല പാങ്ങുണ്ടാവും ആ വൈകുന്നേരത്ത് കളി ആമ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്നിച്ച് കൂടുന്നു അതുപോലെ വൈകുന്നേരം ഫുട്ബോള് കളി രാത്രി ക്ലബ്ബിൻ്റെ രാത്രി ക്ലബ്ബിലൊന്നിച്ച് കൂടി അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയ ചെറിയ ക്യാരംസോ ഇല്ലെങ്കിൽ ഷട്ടിൽ അതല്ലെങ്കിൽ ഒന്നിച്ച് കളിച്ചും കൂട്ടുകാരോടൊപ്പം ഇരിക്കുന്ന കളിക്കുമ്പോൾ കൂട്ടുകാരൊപ്പം ഇരിക്കുന്നത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്സാണ് ഇപ്പോൾ പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നല്ല ചില കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ രക്ഷപ്പെടും അതുപോലെ ആണ് ഈ കൂട്ടുകാരെ കിട്ടുന്നത് തന്നെയാണ് അധികവും നമ്മീ കളിക്കുമ്പോൾ ഞമ്മക്ക് അതിലൂടെ ബന്ധപ്പെടുന്നതും നല്ല നല്ല ആത്മാർത്ഥത പരസ്പരം ഉണ്ടാകുന്നതാണ് ഡെയിലി കളിക്കാൻ പോയിട്ട് ഇങ്ങനെ കണ്ട് മിണ്ടി അങ്ങനെ പരിചയമായിട്ട് നല്ല ആത്മാർത്ഥത അതിലൂടെ നല്ല അല്ലായിന് പെട്ടെന്ന് ഒരു ദിവസം ഒരാളെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് തോന്നേലാല്ലൊ അതുപോലെ ആണ് ഡെയിലി ഇങ്ങനെ കളിക്കാൻ പോയെങ്കിൽ ഉള്ള ഒരു ഗുണം പിന്നെ നാട്ടിലിങ്ങനെ കളിച്ച് കളിച്ച് പ്രാക്ടീസ്സായിട്ട് കുറേ ആൾക്കാർ ഇത് കുറേ വലിയ വലിയ ക്ലബ്ബ് ക്യാമ്പിങ്ങിനൊന്നും പോകാൻ പറ്റാത്തവർ നാട്ടിൽ തന്നെ കളിച്ച് കളിച്ച് അവർ കളി കണ്ട് വിളിക്കും ഇങ്ങനെ വിളിച്ച് വിളിച്ചിട്ട് പോയവരുണ്ട് പൈസ കൊടുത്ത് ക്യാമ്പിനൊന്നും കളിക്കാൻ പോകാൻ കഴിവില്ലാത്തവർ നാട്ടിൽ വന്ന് കളിച്ച് പഠിച്ച് നല്ല പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ഒക്കെ കളിച്ച് രക്ഷപ്പെട്ടവരും ഒരു മാതിരി കുറേ ഉണ്ട് അവർക്കൊക്കെ ഒരു നല്ലൊരേരി ക്യാമ്പിങ് ഏരിയ പോലെ തന്നെയാണ് ഇന്ന് വൈകുന്നേരങ്ങളിൽ ഒന്നിച്ചുള്ള കളിയും പൈസ കൊടുത്ത് കളിക്കുന്നതിനെ കാട്ടിയും വെറുതെ കൂട്ടുകാരോടൊന്നിച്ച് കളിച്ച് കളിച്ച് നല്ല കളി മികവ് വരുത്തിയിട്ട് അങ്ങനെ ഓര് അതിൽ രക്ഷപ്പെടുന്നതും അതും അവർക്കൊരു വലിയ ഒരു നല്ല സന്തോഷമുള്ളതായ ഓന് ടാർഗെറ്റ് ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റിൽ കളിക്കുക നാഷണലിൽ കളിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പക്ഷെ അതിന് ക്യാമ്പിന് പോകാന്ണ്ട ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെ നമുക്ക് ഈ നാട്ടുകാരുടെ ഒന്നിച്ച് തന്നെ കളിച്ച് കളിച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അങ്ങനെ രക്ഷപ്പെടാനുള്ളൊരു ഇതുണ്ടാകും അങ്ങനെ രക്ഷപ്പെടും കുറേ ആൾക്കാർ അങ്ങനെ രക്ഷപ്പെട്ടാളുണ്ട് നാട്ടിൽ തന്നെ സ്റ്റേറ്റിലെത്തിയ നാലഞ്ച് പിള്ളേരുണ്ട് നാട്ടിലിങ്ങനെ നമ്മളൊന്നിച്ച് ക്യാമ്പിനൊന്നും പോവാതെ ഒന്നിച്ച് കളിച്ച് കളിച്ച് അങ്ങനെ രക്ഷപ്പെട്ടവർ ഡേയ്ലി ഇങ്ങനെ അവരോട് കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ മെയിൻ ഒരു ആപത്ത് വന്നാലും ഒരു പ്രശ്നം വന്നാലുമൊക്കെ നമുക്ക് ഇതിലൂടെ ഈ നാട്ടിലുള്ള ഈ കളിക്കുന്ന ആരെങ്കിലും ഒരാളായിട്ട് ബന്ധപ്പെടാൻ കഴിയും അതല്ലാതെ ഒരു പെട്രോള് തീർന്നിട്ട് ബൈക്ക് ആയെങ്കിൽ ആരെയെങ്കിലും ആയിട്ട് വിളിച്ചെങ്കിൽ ആരെങ്കിലും വന്നിട്ട് ഹെൽപ്പാക്കും ഇങ്ങനെ കണ്ടെങ്കിൽ ഹെൽപ്പാക്കും നമുക്ക് മെയിൻ അതിൻ്റെ ബാക്കിൽ ഓടി കുറേ ബുദ്ധിമുട്ടണ്ടതില്ല എണ്ണ തീർന്നാലും ആരെ വിളിക്കും ഇപ്പം എന്താക്കൽ ആര് വരും എന്നൊന്നും ചിന്തിച്ചിട്ട് അവിടെ എനിക്കിങ്ങനെ ഇങ്ങനെ സമയം കളയേണ്ടതില്ല ആരെങ്കിലും ഒരാൾ കണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഇങ്ങനെ വൈകുന്നേരം കളിക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കിയെങ്കിലന്നെ ആരെങ്കിലും അടുത്തുള്ള ആൾ വന്നിട്ട് ഹെൽപ്പാക്കും അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടാവും നമുക്കിങ്ങനെ നാടുകളിൽ കളിക്കുമ്പോൾ ഈ അടുത്തടുത്ത നാട്ടുകാരെല്ലാം അവരോരോന്ന് നാടിൽ ഇങ്ങനെ ഗ്രൗണ്ടുണ്ടാവില്ല നമ്മൾ നാട്ടിൽ ഗ്രാമത്തിൽ ഇന്ന് അധികവും ഫുട്ബോൾ ഗ്രൗണ്ടിലിങ്ങനെ ചാൻസ് ഇല്ല ഏതെങ്കിലും ഒരു നാട്ടിലുണ്ടെങ്കിൽ അടുത്തടുത്തുള്ളവരക്കെ അവിടെ പോയി കളിക്കലാണ് അപ്പോൾ അതൊരു അടുത്തടുത്തുള്ള നാട്ടുകാരോടു നല്ല സൗഹൃദം ഉണ്ടാവും ഇങ്ങനെ ഒര അപ്പ്രൊ ഇപ്പ്രൊ ഒരു പുചചമുണ്ടാവില്ല കാണുന്നവരോടൊരു നല്ല സൗഹൃദവും നല്ല സന്തോഷലും അങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ കാണുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാതരത്തിലു എല്ലാവരോടും ഉണ്ടാവുന്നത് നമുക്ക് പിന്നെ ഒരാളോട് ഇങ്ങനെ

ആ നല്ല ഹാപ്പിനെസ്സ് ആയിട്ടുണ്ടാവും എല്ലാവരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുമ്പോൾ പിന്നെ പരസ്പരം ഒരു ഫാമിലി പോലെ തന്നെയാവും ഏകദേശം എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ കളിക്കുന്നവർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കളിച്ച് രക്ഷപ്പെട്ടു പോയവരും കുറേയുണ്ട് ഈ ഗ്രാമങ്ങളിൽ കളിച്ചിട്ട് ഏടേം എത്തെ ഗ്രാമങ്ങി കളിച്ച് കളിച്ച് കളിച്ച് നാട്ടിലെ നമ്മൾ കേരളത്തിലെ തന്നെ ഉണ്ടാവുന്ന ഇങ്ങനെ ടൂർണമെൻ്റിൽ കളിക്കാനക്കെ നമ്മൾ ഇങ്ങനെ പിന്നെ നല്ല കോൺഫിഡൻസ്സ് കിട്ടും നമ്മൾ ഒന്നിച്ചിട്ട് എപ്പളു കളിക്കുന്ന പ്ളേയ്സ അപ്പം നമ്മൾക്ക് അവിടെ പോയി ജയിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു കോൺഫി നമുക്കൊരു കളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ടൂർണമെൻ്റൊക്കെ പോകുന്നെങ്കിൽ എവിടെ വേണമെങ്കിൽ ഒരു കോൺഫിഡൻസിൽ പോവാൻ വേണ്ടി പുറത്ത് നിന്ന് വേറെ പ്ലയേർസിൻ്റെ കളിയ്ക്കമ നമുക്ക് ആ ഒരു കോൺഫിഡൻസ്സുണ്ടായില്ല നമ്മളൊക്കെ ഡേയ്ലി കളിക്കുന്ന പിള്ളേരാണെങ്കിൽ നമുക്ക് സെറ്റ് നമുക്ക് ഓരോ മൂമൻ്റ് ഓരോ അവർ ഇത് അത് കളിയല്ല നമുക്ക് ഒരു മനസിലാക്കും മനസിലാവും പെട്ടെന്ന് അതോർത്ത് പിന്നെ പ്രശ്നമില്ല അയെന്ന കോൺഫിഡൻസ് നമുക്കൊരു ടൂർണമെൻ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ പൂവാ നാട്ടിൽ കളിച്ചിട്ടിങ്ങനെ നമ്മൾ ഒന്നിച്ച് തന്നെ കളിച്ച് പ്രാക്റ്റീസായി നാട്ടുകാരെല്ലാം ഒന്നിച്ച് അടുത്തടുത്തുള്ളവർ അങ്ങനെയൊക്കെ കളിച്ച് നല്ല സെറ്റ് കളിയും ആക്കാം നല്ല ടച്ചിൽ എപ്പഴും ഒരു കളിക്കുന്നത് തന്നെ ഒരു പ്രാക്ടീസ്സ് പോലെ ആയിട്ട് കളിച്ചെങ്കിൽ ഒരു ടൂർണമെൻ്റിനുള്ള പ്രാക്ടീസ് പോലെ കളിച്ച് ഡേയ്ലി കളിച്ച് നമുക്കതിനും ഒരു വഴി ഉണ്ടാവും ഇങ്ങനെ ടൂർണമെൻ്റ്സിലൊക്കെ പങ്കെടുക്കാൻ അതിന് ഇതിന് എല്ലാമായിട്ട് പിന്നെ ഓരോന്ന് ഗ്രാമത്തിൽ പിന്നെ ഇത് ഗ്രൗണ്ട് ഉണ്ടാകുന്നില്ല അതാണ് അവർക്ക് ഭയങ്കര കളിക്കാൻ തന്നെയായിട്ട് ഇപ്പം കു റേ ഫുട്ബോൾ പ്രേമികളുണ്ടാവും ക്രിക്കറ്റ് പ്രേമികളുണ്ടാവും ഓർക്കൊന്നും കളിക്കാൻ ഗ്രൗണ്ട് കിട്ടലില്ല അപ്പം ഈ പൈസ ഇല്ലാത്ത പൈസയും കൊടുത്തൊരു ടെർഫ്കളിൽ അങ്ങോട്ടു ഇങ്ങോട്ടുമൊക്കെ പോകണ്ടി വരുന്നത് അത് ഭയങ്കരം ഒരു ബുദ്ധിമുട്ടാണ് മേഞുമെ എല്ലാ ആ നാട്ടിലും ഒരു ഗ്രൗണ്ടെങ്കിലും ചെറുതെങ്കിലും വലുതെങ്കിലുമായിട്ട് ഒരു ഗ്രൗണ്ടെങ്കിലും അവിടുത്തെ പഞ്ചായത്ത് ആരെങ്കിലും അങ്ങനെ ഇതായിട്ട് ബന്ധപ്പെട്ടവർ നിയമിച്ചു കൊടുക്കുന്നതാണ് നല്ലത് ആയിരിക്കും എന്തുകൊണ്ടും ഒരു നാട്ടിൽ ഒരു ഗ്രൗണ്ട് വേണം അതാണ് നല്ലത് നല്ല സൗഹൃദം പുലർത്താൻ പറ്റും പരസ്പരം ഇപ്പോൾ പിന്നെ എല്ലാം ഫോൺ അടിക്റ്റ് ഗ്രൗണ്ടില്ലെങ്കിൽ പിന്നെല്ലാവരും വീട്ടിൽ കൂടി പരസ്പരം നാട്ടാരേയും തിരിച്ചറിയില്ല ആരേയും അറിയില്ല ഒരു കളിക്കുന്ന സ്ഥലം ഇല്ലെങ്കിൽ അപ്പ്രോ ഇപ്പ്രോ അറിയാൻ പറ്റില്ല ഒരു കളിക്കുന്ന രീതി ഉണ്ടെങ്കിൽ ഒരീസം കളിക്കാൻ പോവാമെന്ന് വിചാരിച്ചു വന്ന പിന്നെ ഡേയ്ലി വരും അങ്ങനെ ഇങ്ങനെ ഡേയ്ലി പോയിപ്പോയി പിന്നെ എല്ലാ ദിവസവും അങ്ങനെ പോവും അതൊരു ന്ന പിന്നെ മനസിലാവും ഫ്രെണ്ട്ഷിപ്പുണ്ടാവും സൗഹൃദം ഈ ഫാമിലി പോലെയാണ് അതൊക്കെ നല്ല അഡ്വാൻടേജാണ്